ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഒമ്പത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത്